എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ബൈക്കുകളുണ്ട് ഫസ്റ്റ് തന്നെ ആദ്യമുള്ളത് ആർ എക്സ് ഹൻഡ്രഡ് അത് വേറെ ലെവല് വണ്ടിയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്പ്ലെണ്ടര് അതുപോലെ സി ടി ഹഡ്രഡ് ഇതൊക്കെയന്ന് വെച്ചുകഴിഞ്ഞാല് അതൊരു ഹരമാണ് ആവേശമാണ് ആ വണ്ടിയിലൊക്കെ പോവുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട ബൈക്കാണ് എനിക്ക് എടുക്കണമെന്ന് തോന്നുന്ന ഒരു ബൈക്കാണ് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഊഫ് അതിന്റെ പെർഫോമൻസ് ഒരു രക്ഷയുമില്ല കാരണം അത് അത്യാവശ്യം ലോങ്ങ് റൈഡിനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കംഫർട്ട് ആയിട്ട് പോകാൻ പറ്റിയ ഒരു ബുള്ളറ്റ് ടൈപ്പാണത് റോയൽ എൻഫീൽഡിൻ്റെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി അത്യാവശ്യം അടിപൊളിയാണ് കാണാനൊക്കെ നല്ല സ്റ്റൈലിഷ് ലുക്കാണ് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അടിപൊളി സ്കൂട്ടികളും കാര്യങ്ങളുമൊക്കെയുണ്ട് ഈ എൻടോർക്കാണെന്നുണ്ടെങ്കിലും അതൊക്കെ സ്കൂട്ടി ഐറ്റത്തിൽപ്പെടുന്ന നല്ല അടിപൊളി വണ്ടികളാണ് ഈ സ്കൂട്ടി എൻടോർക്ക് പിന്നെ അതേപോലെ ഫാസിനോ ഡിയോ പിന്നെ ബജാജ് ചേതക്ക് ഇതൊക്കെ അടിപൊളി യാത്ര ചെയ്യാനൊക്കെ നല്ല ഇതാണ് അതുപോലെ വെസ്പ കാണാൻ നല്ല സ്റ്റൈലിഷ് ആണ് ഇപ്പോള് സത്യം പറഞ്ഞാല് യാത്ര ഈ ലോങ് റൈഡിനൊക്കെ ശരിക്ക് ബൈക്കേഴ്സിനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവര് ബുള്ളറ്റ് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് അതായത് സ്റ്റാന്ഡേര്ഡ് ക്ലാസ്സിക് ഈ ബുള്ളറ്റൊക്കെയാണെന്നുണ്ടെങ്കില് അവർക്ക് അടിച്ചുപൊളിച്ച് പോകാം ഒരു വൈബ്രേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമുണ്ടാകില്ല ഒരു യാത്രയ്ക്ക് നല്ല കംഫേർട്ടുള്ള ഇത് സത്യം പറഞ്ഞാല് ബുള്ളറ്റുകളാണ് റോയൽ എൻഫീൽഡിൻ്റെ ഈ റൈഡേഴ്സിനൊക്കെ പറ്റുന്നത് അതാണ്